ജോലി സ്ഥലത്തെ സംഘർഷങ്ങളും പ്രയാസകരമായ സാഹചര്യങ്ങളും ഞാൻ തരണം ചെയ്യുന്നത് നല്ല വ്യക്തമായ ഒരു ബന്ധം കീപ്പ് ചെയ്തുകൊണ്ടാണ് അതായത് കോ വർക്കേഴ്സും സബോഡിനേറ്റ്സും എല്ലാവരുമായി നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യുന്നു അതിലൂടെയാണ് ഞാൻ എൻ്റെ ജോലിസ്ഥലത്തെ സംഘർഷങ്ങളും പ്രയാസകരമായ സാഹചര്യങ്ങളും തരണം ചെയ്യുന്നത് ഒരു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ആദ്യം നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യം നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക എന്നതാണ് നമ്മുടെ ഒപ്പം ചെ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ നമ്മുടെ താഴെ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ മുകളിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ അവരുമായി നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുന്നതൊടു കൂടി നമുക്ക് ജോലിയിലെ പ്രയാസങ്ങളെ നമുക്ക് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നമുക്കതിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു ധൈര്യമുണ്ടായിരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ നമ്മുടെ തെറ്റുകൾ തിരുത്തി തരാനോ അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകൾ കാണിച്ച് തരാനോ എല്ലാവരും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ജോലി സ്ഥലത്തെ സംഘർഷങ്ങളും പ്രയാസകരമായ സാഹചര്യം നമുക്ക് വളരെ വളരെ നല്ലൊരു പോസിറ്റീവായ മൈൻ്റോടു കൂടി തന്നെ നമുക്ക് അതിനെ അഭിമുഖീകരിക്കാവുന്നതാണ്